ഹലോ ആ ചേട്ടാ എവിടെ ആ എത്ര താമസിക്കും ആ ഹ ഹ ആ എന്തോ ആടിനൊക്കെ തീറ്റ കൊടുത്തു ഹാ ഹാ ഹാ ചേട്ടാ വരുന്ന വഴിക്ക് കൊച്ചിനെ കൊണ്ടുവരുമോ അല്ല അപ്പ ചേട്ടൻ വരുമ്പോള് ലേറ്റാവുവേലെ അല്ലേ ഞാൻ പോകേണ്ടേ അല്ലേപ്പിന്നവൻ തന്നെ നിയ്ക്കേലേ അവിടെ ആ അര മണിക്കൂര് കഴിയുവെന്ന് പറയുമ്പോള് മൂന്നര കഴിയുവേലേ ചേട്ടായി മൂന്നര ആവുമ്പോഴല്ലേ അവനെ വിടുന്നത് ആ ഞാന് പൊക്കോളാം ഞാന് പൊക്കോളാം ഓ ശരി പപ്പാ ഇവിടെയുണ്ട് അവര് ചോറുണ്ട് കഴിഞ്ഞ് കിടക്കുകയാണ് ചോറിന് പാവയ്ക്കാത്തോരനുണ്ട് ഒരു ആ ഒര് മോരൊണ്ട് പിന്നെ മീനൊണ്ടായിരുന്നു മ് മ് മ് വിളിച്ചില്ല ചേട്ടാ ഇന്ന് രണ്ടുമൂന്ന് ദീസായേ വിളി ഞാനങ്ങോട്ടൊന്ന് വിളിക്കണോന്നോർത്തിട്ട് നടക്കുന്നില്ല ഹ ഹ ഹ ചേട്ടാ ഈ കൊച്ചിൻ്റ ഫീസടച്ചായിര്ന്നോ ആ മെസ്സേജ് വന്നാരുന്നു ഇന്നേ സിസ്റ്ററെന്നെ വിളിക്കുകയും ചെയ്തു ശ്യാമിൻ്റെ മാത്രേ അടയ്ക്കാനുള്ളെന്നുമ്പറഞ്ഞ് ആ അവന് രാവിലെ പറഞ്ഞിട്ടാണു പോയത് പൈസേങ്കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞെന്ന് അപ്പോള് ഞാനവനോട് ചോദിച്ചു എന്നാ എന്തിൻ്റെ പൈസ എന്നാടാ ടീച്ചര് പറഞ്ഞേന്ന് പറഞ്ഞപ്പോള് അതൊന്നുമ്പറഞ്ഞില്ല അവൻ്റെ വേറൊരു ഫ്രണ്ടിനെ പേരു പറഞ്ഞ് ദേവനും ഈതനും പൈസായുങ്കൊണ്ടേ വരാവുള്ളൂ എന്നു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോള് എനിക്ക് തോന്നി ഫീസിൻ്റെ ആയിരിക്കുമെന്ന് ആ ഹും ആ അതുമടയ്ക്കണം അതുമടയ്ക്കണം ഉം ഹും ഹും പിന്നെ ഉണ്ടല്ലോ ടീച്ചറെന്നോടൊരു കാര്യം പറഞ്ഞവനാണേ ഇത്തവണ മാർക്ക് തീരെക്കുറവാന്ന് വീട്ടില് വന്നിട്ട് പഠിപ്പിക്കുന്നില്ലേന്ന് ഹും ഹും ഹും ഇനി അവനേ ട്യൂഷന് വല്ലതും വിടണോ ഹും ഹും അല്ല ഹും ഹും അവൻ നാല് കഴിഞ്ഞില്ലേ ഇനി അഞ്ചിലേക്കല്ലേ മാത്സക്കെയാണെലുമിതിൻ്റെ കണ്ടിന്വേഷനാ ഉം ഉം ആ ഹാ ആ ഹ ഹ ഹ ഹ പിന്നെ പിന്നെ ഹും പിന്നെ വാട്ടർ ബില്ലടച്ചോ ചേട്ടായി എല്ലാം അടക്കാങ്കെടക്ക്വാണല്ലോ അതെന്നാ മറന്ന് മറന്നതാര്ന്നോ ഹും ഹും ഹും പിന്നെ ഇന്നെന്നാതി ആ എന്തേന്ന് വന്നില്ലല്ലോ ചേട്ടായി വിളിച്ചാര്ന്നോ ഇറങ്ങിയപ്പോള് അവരെ ആ ഹ ഹ അല്ലല്ല വന്നില്ലാട്ടോ ഇന്നിവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നേ ഇനി അതുകൊണ്ടാണോ താമസിക്കുന്നേന്നറിയത്തില്ല ഓ ശരി ശരി ചേട്ടാ എന്നാ ചേട്ടാ ഇന്നിത്രയും താമസിക്കുന്നെ ഹും ഹും ഓ ശരി ശരി ഉം എന്നാ ഫങ്ഷനാ ഓ ശരി ശരി ഹും ഹൂ ഹും ആ ഓ എന്നാ ശരി ഓക്കെ